ഹലോ ഓൾ കേരള ട്രിപ്പിന് വേണ്ടിയിട്ടായിരുന്നേ ഏതൊക്കെ സ്ഥലങ്ങൾ എങ്ങനെയൊക്കെ ആണ് സൗകര്യങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞ് തന്നാൽ നല്ലതായിരുന്നു സെവൻ സീറ്റ് എല്ലാംകൂടി ഒരു വൺ വീക്ക് അ ഫുഡ് സൗകര്യം നിങ്ങളുടെ ഇതില് എങ്ങനെയാണുള്ളത് നിങ്ങളുടെ ടാർജെറ്റ് എങ്ങനെ ക്ലിയർ ആയില്ല സ്നാക്ക്സ് എന്തായിരിക്കും മെനു എങ്ങനെയാണ് മെനു ഒന്ന് മെനു ഒന്ന് പറഞ്ഞ് തന്നാൽ അതെ നമ്മള് ഓർഡർ തരുന്നത് നിങ്ങള് കുക്ക് ചെയ്ത് തരും ഇരുപതിനായിരം രൂപ അതില് ലഞ്ച് ഡിന്നറ് എല്ലാം ഉണ്ടാവും താമസ സൗകര്യം എവിടെ ആയിരിക്കും നമ്മൾ ഈ സെവൻ ഡേയ്സില് എവിടെയൊക്കെ കവർ ചെയ്യാനുള്ളത് മെയിനായിട്ടുള്ള സ്ഥലങ്ങള് താമസം ഹോട്ടൽ ആയിരിക്കുമോ ഇല്ലെങ്കിൽ പേയിങ് ഗസ്റ്റ് ആയിട്ടുള്ള റൂംസ് ആയിരിക്കുമോ എങ്ങനെ ആയിരിക്കും വില്ല റിസോർട്ടിലായിരിക്കും റിസോർട്ട് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടാവും പ്രൈവറ്റ് പൂള് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും നമ്മുടെ ഈ ഇരുപതിനായിരം രൂപയില് എല്ലാം ഒതുങ്ങും എത്ര സ്ഥലങ്ങളാ കവർ ചെയ്യും എന്ന് പറഞ്ഞത് അത് നമ്മള് തരുന്ന മെയിൻ ആയിട്ടുള്ള മെനു അനുസരിച്ചാണോ അ ഓക്കെ താങ്ക്യൂ സർ ഓക്കെ അ അ ഓക്കെ താങ്ക്യൂ